ഇപ്പം ഞാൻ വിളിക്കുന്നതേ ഉള്ളു ഹലോ ഹലോ ആ ആ പറഞ്ഞോ എന്തായിരുന്നു ജെയിംസേ ഉവ്വ ഉവ്വ എവിടെ എവിടെ ആയിട്ടാണ് എവിടായിട്ടാണ് എവിടായിട്ടാണ് ആ നാളെയോ ആ ആ ആ റോഡ് സൈഡാണോ റോഡ് സൈഡാണോ ആ പുര പുര ഉണ്ടോ മറ്റേ നമുക്ക് റോഡ് ആ ആ ഓക്കെ ആ റോഡ് സൈഡിൽ നമുക്ക് കട വയ്ക്കാനുള്ള സൗകര്യം കിട്ടുന്ന ഇടം ആണോ അതേ അല്ലേ മ്മ് അതല്ലാതെ ആ സ്ഥലം അല്ലാതെ വേറൊരു സ്ഥലം പറഞ്ഞില്ലായിരുന്നോ റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ കട വയ്ക്കാൻ സൗകര്യം ഉള്ളതും അതുപോലെ തന്നെ അടുത്തൊരു വീടുള്ളതു ആയിട്ടൊരു കട പറഞ്ഞ് അത് സ്ഥലം പറഞ്ഞില്ലായിരുന്നോ ആ ആ എനിക്ക് സ്ഥലം കുറച്ച് മതി പക്ഷേ വീടിനും ഇതും കൂടി വേണം അതുകൊണ്ടത് നമുക്ക് ആ അതിൻ്റെ വില പറഞ്ഞില്ലായിരുന്നോ അവർ പറഞ്ഞായിരുന്നല്ലോ എന്ത് വില ആകുമെന്ന്

ആ ആആ അതേ ആ ഉവ്വ ഉവ്വ അത് കുഴപ്പമില്ല അവിടെ ഇപ്പ കുഴപ്പമില്ല അത് എന്ത് വില ആകും ആ അത് മതിയെന്നേ നമുക്കിപ്പം ആ ആ മ്മ്

മ്മ്മ്മ് മ്മ് മ്മ് ആ മറ്റേ ആ സ്ഥലം അതിന് എന്ത് വില കൊടുക്കേണ്ടി വരും നമുക്കൊരു ആ ഒരു മ്മ് ഒരു പത്തിരുപത് രൂപ കൊടുത്താൽ കിട്ടുമോ ഒരു ഇരുപത് രൂപ ഒരു ഇരുപത് രൂപ കൊടുത്താൽ കിട്ടുമോ അതെയോ ആ ഓക്കെ എന്നാൽ കുഴപ്പമില്ല ഞാൻ അതിന് നമുക്ക് അഡ്വാൻസ് കൊടുത്താലോ മ്മ് നാളെ എന്നിട്ട് ആ നാളെ എന്നെ നാളെ ഒന്ന് കാണണം നാളെ പോയി കണ്ടേച്ച് നമുക്കത് കച്ചവടം ചെയ്യാം പോരേ മ് മ്മ് മ്മ് അന്നേരം ആ നാളെ എന്നിട്ട് നമുക്കത് മ്മ് ആ ഹാ ഹാ ഹാ അ അത് സാരമില്ല പൈസ കൊടുത്ത് കഴിയുമ്പം നമുക്ക് പട്ടയം കിട്ടുവല്ലോ മ്മ് ശരി ഓക്കെ എന്നാൽ അങ്ങനങ്ങ് ചെയ്യാം ഏ ആ ആ എന്നാൽ ശരി വയ്ക്കട്ടെ ആയിക്കോട്ടെ മ്മ് മ്മ് ആ അത് പോര എന്നാണ് പറഞ്ഞത് ആ ഓക്കെ ഏ ഓ ഉവ്വ ഉവ്വ ആ അതേ അതേ അങ്ങനെ അങ്ങ് ചെയ്യാം ആ അത് മതി അതപ്പം എല്ലാവരെയും കൂടെ കൊണ്ട് കാണിക്കാം എന്നിട്ട് അതനുസരിച്ച് ആ അത് സാരവില്ലന്നെ നമുക്കത് മേടിച്ച് കഴിഞ്ഞ് ന്യായമായിട്ട് കിട്ടുവാണെങ്കിൽ മേടിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരേ ഏ ആ അങ്ങോട്ട് മാറുമ്പോൾ ആ മ്മ് ആ ഉവ്വ ഉവ്വ ആ ആയിക്കോട്ടെ അത് സാരമില്ല നമുക്കതിപ്പം അതേ അതേ ഉവ്വ ഉവ്വ മ്മ് ആ അത് മ്മ് അത് സാരമില്ല നമുക്കങ്ങനെ വയ്ക്കാം ആ നാളെയോ നാളത്തെ കഴിഞ്ഞോ പോകാം മ്മ് മ്മ് എന്നാൽ ശരി ഓക്കെ